തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു ഞാൻ ഒരു ദിവസം യാത്ര പോയത് വാരണാസി കാശി കാശി രാമേശ്വരം അവിടെയായിരുന്നു പെട്ടന്നുള്ള ഒരു യാത്രയായിരുന്നു അതുകൊണ്ടുതന്നെ ഒന്നും പ്രിപ്പെയറായിരുന്നില്ല

ട്രെയിനിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പോയി അവിടെ പോയി കാശി പോയി എല്ലാം കാഴ്ചകളും കണ്ട് വളരെ വ്യത്യസ്തമായ ജീവിതരീതിയും അവിടത്തെ ചുറ്റുപാടും അന്തരീക്ഷവും ഓരോ സന്ദർഭങ്ങളും എല്ലാം നമ്മള് പ്രത്യേകം വേറൊരു നമ്മളൊന്നും ഒന്നും അല്ല അല്ലെങ്കിൽ അവിട പോവുമ്പോൾ എല്ലാവരും വെറും പച്ചയായ മനുഷ്യൻമാരാണ് എന്ന് അനുഭവപ്പെടുത്തുന്ന നമുക്ക് ആ ഒരു ഫീല് തരുന്ന ഒരു സ്ഥലമാണ് കാശിയെന്ന് പറയുന്നത് നമ്മളെ നമ്മളായി കാണാനും നമ്മളെ നമ്മുടെ ശരിക്കും ഉള്ള നമ്മളെ ഫീല് ചെയ്യാനും പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കാശിയെന്നു പറയണത് അവിടെ പോയി പെട്ടന്നായിരുന്നു യാത്രയൊക്കെ കണ്ട് രണ്ട് ദിവസം അവിടെ സ്റ്റേ അടിച്ച് എല്ലാവിടെയും ചുറ്റി കണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി കാണാൻ രാത്രിയും തോണിയിലുള്ള യാത്രയും ഇതൊക്കെ കഴിഞ്ഞ് പെട്ടന്നായിരുന്നു തിരിച്ചു വരണം തിരിച്ചു വരാൻ പോവുമ്പോൾ ശരിക്കും പ്ലാനിട്ടിട്ടുണ്ടായിരുന്നത് വരുമ്പോഴും ട്രെയിനിനു വരാം പോവുമ്പോഴും ട്രെയിൻ യാദൃശ്ചികമായിട്ടാണ് ഫ്ലൈറ്റിൽ വരേണ്ടി വന്നത് അതൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഒട്ടും മറക്കാൻ പറ്റാത്തതും ഇതുവരെ പ്ലെയിനിൽ കയറാത്ത എനിക്കതൊരു അവിസ്മരണീയ നിമിഷമായിരുന്നു ഞാനതിൽ കയറി അവിടുന്നു പെട്ടന്ന് എല്ലാവരും ഫ്ലൈറ്റിൽ പോവണമെന്നായി അപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വരികയാണ് ഉണ്ടായത് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരുന്നു അപ്പോൾ അവിടുന്ന് യാദൃശ്ചികമായി സംഭവിച്ച ഒരു സംഭവം നല്ല യാത്രയായിരുന്നു ഫ്ലൈറ്റിൽ പെട്ടന്ന് എത്താൻ പറ്റി ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത ഞാൻ ഒന്ന് കയറി ആകെ എനിക്കുതന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു ഫ്ലൈറ്റിൽ കയറുകയെന്നുള്ളത് പെട്ടന്ന് കയറിയപ്പോൾ ഞാൻ കയറിയോയെന്ന് എനിക്കു പോലും അറിയാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ അതാണ് ഏറ്റവും ജീവിതത്തില് മറക്കാൻ പറ്റാത്ത ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ ജീവിതത്തിലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമെന്ന് പറയണത്